ഞാൻ ട്രക്കിങ്ങിന് പോവുന്നൊരു വ്യക്തിയാണ് ഞാൻ പോവുന്ന സ്ഥലങ്ങളിലൊക്കെ ധാരാളം മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാണാറുണ്ട് അതൊക്കെ ഗവൺമെൻറിൻ്റെ സർക്കാരിൻ്റെ കാണിച്ചുകൊടുക്കേണ്ടത് വളരെ അത്യാവ്യശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ സംസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ നമ്മള് തന്നെ കണ്ടെത്തണം ഇപ്പോൾ പോവുമ്പോൾ ധാരാളം മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുന്നുകൂടി കിടക്കുന്നത് കാണാറുണ്ട് നമ്മുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വഴികളിൽ മാലിന്യങ്ങൾ ഇടാതിരിക്കുക ഇപ്പം കടയിൽനിന്ന് എന്ത് മേടിച്ചാലും അതൊക്കെ പ്രോപ്പർ ആയിട്ട് സ്ഥലങ്ങളിൽ വീടുകളിൽ തന്നെ നിക്ഷേപിക്കുക ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എടുക്കാനായിട്ട് വീടുകളിൽ ഗോവെർമെന്റിൽനിന്ന് ആൾക്കാർ വരാറുണ്ട് അതുപോലെ അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് മെച്ചപ്പെടുത്തി എടുക്കാൻ അത് അധികൃതരെ അറിയിക്കേണ്ടതും അവരെ കണ്മുന്നിൽ കാണിച്ചുകൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്